ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല്